അഹ് അ ഇത് ബേക്കറി അല്ലെ ആര്യ ബേക്കറി അ അതെ ഞാൻ ഒരു കേക്ക് ഓർഡറ് കൊടുക്കാനായിരുന്നു ആ അ മാറ്റന്നാളത്തേക്ക് ബർത്ഡേ കേക്ക് ബർത്തഡേയ്ക്കാണ് അപ്പം എത്ര കിലോൻ്റെ ആണ് പേസ്റ്ററി ഏതൊക്കെ ആണ് ഉള്ളത് ഒരു ഒന്നോ ഒന്നൊന്നര കിലോയുടെ മതിയാവും

അതെ എന്നെങ്കിലും ഇതുണ്ടോ ഇപ്പം പുതിയതായിട്ട് ഈ ഫോട്ടോയൊക്കെ വച്ചു പ്രിൻ്റ് ചെയ്യുന്നത് വല്ലതും കാണൂമോ

ഡിസൈൻ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആയാലും മതി ഹാർട്ടോ അല്ലെങ്കിൽ അല്ലേങ്കിൽ ഒരു റക്റ്റാങ്ഗിൾ ഷേപ്പ് ആയാലും കുഴപ്പം ഇല്ല ഉള്ളിൽ ഉള്ളിൽ കുറച്ചു ഹാർട്ടിൻ്റെ ആ ഒരു ഇമേജസ് പോലെ വച്ചാലും മതി ആഹ് ഏതാണ് ഏതാണ് ഇതുള്ളത് നല്ല ഇപ്പം ഇപ്പം നല്ല ഒരു ഇത് ഉള്ളത് കുറച്ചു ടേസ്റ്റൊക്കെ ഉള്ളത് ഫ്ലെവർ ഏതാണ് ഓക്കെ ആണ് വാനിലയും ചോക്കളേറ്റോ

ഞാൻ അത് അപ്പം ഒരു ഒരു കാര്യം ചെയ്തോട്ടെ ഞാൻ ഇമേജും അ വയ്ക്കേണ്ട ഇമേജും അതിൻ്റെ പേരും ഒക്കെ ഞാൻ വാട്സപ്പ് അയച്ചു തരാം ആ അത് അയച്ചു തരാം അപ്പം ഒന്നര കിലോ മറ്റന്നാളാണ് അപ്പൊ ഓ മാറ്റന്നാളത്തേക്ക് ഏഹ് എ എത്ര മണിക്ക് കിട്ടും മറ്റന്നാൾ ആ പത്തുമണി പത്തുമണിക്ക് മതി ഓക്കെ ശരി ആ